പാട്ടെന്നു പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഒരോ പരിപാടിക്ക് വേണ്ടിയിട്ട് പാടി കൊണ്ണ്ടുക്കിയതാണോരോ എൽ കെ ജി മുതൽ ഞാനോത്ത് പള്ളി അങ്ങനെ പാടി യൂ കെ ജിയിൽ പാടും പിന്നെ അങ്ങനെ ഒരു പാടാനുള്ള മടി കൊണ്ടൊക്കെയാണ് പാട്ടു പാടാൻ കാഷ്വലായിട്ടുള്ള പാട്ടാണ് അതേപോലെ കുളിക്കുമ്പോൾ പാട്ട് പാടും അല്ലെങ്കിൽ ബാത് റൂമിൽ നിന്ന് പാടും ബാത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടായി പാടൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റടുത്തൊക്കെ പാട്ടു തന്നെ പാടുന്നുണ്ടാകും മൊത്തത്തിൽ ഒരു ദിവസം ആവറേജായിട്ട് ഒരു മണിക്കൂർ താഴെ നാൽപ്പത് അൻപത് മിനിറ്റ് വരെ ഒരു ദിവസം പാട്ട് പാടും അവർക്ക് ഒറ്റക്ക് ഓരോരുത്തർക്കാണെ അങ്ങനെ പാട്ട് പാടില്ല പാട്ട് കേൾക്കും പാട്ടു പാടുന്നത് അങ്ങനെക്കെയാണ് അല്ലാണ്ട് പാട്ട് പഠിക്കാണ്ട് എങ്ങനെയാണ് പാട്ടുകൾ എങ്ങനെയാണ് പഠിക്കണേ എന്നു വെച്ചാൽ ഈ പറഞ്ഞ മാതിരി അത് അപ്പം പാട്ട് കേട്ടിട്ടാണെങ്കിൽ ഫോണിൽ യൂട്യൂബ് മ്യൂസിക്കുണ്ട് സ്പോട്ടിഫൈവുണ്ട് പണ്ടാണെങ്കിൽ റോഡിയോയിൽ കാസറ്റിട്ട് കണ്ടാണ് ഒരു സി ഡിയിൽ ടി വിയിൽ വരുന്നത് സിനിമേൻ്റെ പാട്ടുകൾ ഇപ്പം ഒരു ട്രിപ്പ് ബസ്സിലൊക്കെ പോകുമ്പം പാട്ട് വെക്കും അപ്പം പാട്ടിങ്ങനെ തപ്പും ഗൂഗിൾ തപ്പിയിട്ട് അങ്ങനെയൊക്കെയായിട്ട് ഞാൻ പാട്ടെടുക്കും അപ്പം പാട്ടെന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലെ കേട്ട് ശീലിച്ച് കൊണ്ടങ്ങനെ പാടുന്നതാണ് അല്ലേ വലിയ പാട്ടുകാരനായിട്ടല്ല പാടും പാട്ടിന് മൂന്ന് തരം പാട്ടുകളാണ് ഉള്ളത് നല്ല പാട്ടിൽ കുഴപ്പയില്ലാത്ത രീതിയിലാണ് മിക്കതും വരുന്നത് അപ്പോൾ വലിയ പ്രശ്നമല്ലാതെയാണ് അത് മുന്നോട്ടു പോണത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പാട്ടിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിലിപ്പെങ്ങനെയാണ് എത്ര നേരം ടൈം വെച്ചിട്ട് പാട്ട് പാടുകയെന്നറിയില്ല ഈ പിന്നെ പരുപാടിയിലൊക്കെയുണ്ടെങ്കിൽ അതെല്ലാവരും കുളമാക്കി പാടുകയാണെങ്കിൽ പാടും ചില പാട്ടുകൾക്ക് പാടാൻ നന്നായിട്ട് കഴിയും ചില പാട്ടുകൾക്ക് പാടാൻ നമുക്ക് കഴിയില്ല എങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പാടുകയൊക്കെ ചെയ്യിക്കും ഈ വീട്ടിൽ എല്ലാ പാട്ടും പറ്റും കേട്ടോ ഇപ്പം മലയാളം പാട്ട് പറ്റും തമിഴ് പറ്റും പിന്നെ ഹിന്ദി ഇംഗ്ലീഷും പറ്റും ഏറ്റവും കൂടുതൽ മലയാളം പാട്ടു തന്നെയാണ് പിന്നെ ഹിന്ദി പാട്ടും പണ്ടത്തെ പാട്ടുകൾ തന്നെ വ്യത്യസ്തമായിട്ട് വരുത്തി പണ്ടത്തെ അറുപത് മുതൽ എഴുപതിലെ എൺപതിലെ പാട്ടുകൾ പാടും ഇപ്പം പൊതുവെ കേക്കണിപ്പം പൊ പൊന്തി വരുന്ന പാട്ടുകൾ വരും പിന്നെ ഈ പണ്ട് ഈ സ്മൂൾ പോലെയുള്ള പിന്നെ സ്മൂൾ മ്യൂസിക്ക് കാരോക്കെ ഓട്ടോമാറ്റിക്ക് വെച്ചിട്ട് അങ്ങനെ യുട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ സ്മൂൽ പറഞ്ഞ ആപ്പിൽ നിന്നോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പാടിയിരുന്നു പിന്നെ ഹിന്ദിപ്പാട്ട് അങ്ങനെ തന്നെയാണ് പണ്ടത്തെ പാട്ടും ഇപ്പോഴത്തെ പാട്ടും വേറെ വേറെ കേൾക്കും അവരീ പാട്ടൊക്കെ വെച്ചിട്ടാണ് പാടാൻ നിൽക്കൽ അപ്പം പാട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പാട്ടിൽ എന്താച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് പാടും പഠിക്കണമെന്നു വെച്ചാൽ കേട്ടു തന്നെയാണ് ടി വിയിൽ കേൾക്കും അവരിപ്പം ഫോണിൽ നെറ്റൊക്കെയുള്ളതു കൊണ്ട് ആ പാട്ടു തന്നെ കുറേ വട്ടം കേൾക്കാൻ പറ്റും പണ്ട് മറ്റേ പാട്ട് വരാൻ കാത്തു നിൽക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഡൗൺ ലോഡ് ചെയ്തിട്ട് ഈ മെമ്മറി കാർഡിലൊക്കെ ആക്കി വെച്ചിട്ട് കേൾക്കണം അപ്പം അങ്ങനെ പാട്ടു കേൾക്കലാണ് കുഴപ്പമില്ലാതെ ഇതിൽ കേട്ട് പ്രശ്നമില്ലാതെ കാണലുണ്ട് പിന്നെ പാട്ടിൻ്റെ അറിഞ്ഞാൽ പാട്ടിൽ ആളുകൾ പോകുന്നതാണ് അതുപോലെ സിനിമേലാണിപ്പം ഏറ്റവും കഷ്ടത്തിൽ പാടാൻ പാടണം വെച്ചാൽ ഹിന്ദിപ്പാട്ടെ ഒന്നും കൂടി ഇതിൽ മലയാളത്തിൽ കുറച്ച് അങ്ങനത്തെയൊന്നും വരില്ല പല ഡിഫിക്കൽട് ചില പാട്ടുകൾ ഭയങ്കര എളുപ്പത്തിൽ പാടാൻ പറ്റും ചിലതെല്ലാം ഉപകരമായിട്ടുള്ള ഗാനമെന്നു വെച്ചാൽ ഒരുപാട് പ്രഫഷണലായിട്ട് പാടുന്ന ആൾക്കാരൊന്നും അല്ല സാധാരണ മൂളിപ്പാട്ട് പാടുന്നുണ്ട് അപ്പം അങ്ങനത്തൊരു ഇതിനിടയിൽ വരാറുണ്ട് പിന്നെ ഈ പാടാൻ പറ്റിയ പാട്ടാണെങ്കിൽ സ്ഥിരമായിട്ട് പാടുന്നില്ല എന്നാലും പാടുന്ന വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പാടും എന്നിട്ട് സ്റ്റേജിലൊന്നും അങ്ങനെ പണ്ട് ക്ഷേത്രത്തിലൊക്കെ പാടിയിട്ടുണ്ട് പിന്നെങ്ങനെ സ്റ്റേജിൽ പാടുന്ന പരിപാടിയൊന്നുമില്ല എന്നാലും സ്റ്റേജിൽ നമ്മുടെ ഈ പത്ത് ഇപ്പടുത്തൊരു ടൂർ പോയപ്പം ബസ്സിന്ന് ടൂർ പോകുമ്പോഴൊക്കെ ബസ്സിന്ന് പാടുക അല്ലെങ്കിൽ അവിടെ നിന്ന് വലിയ മൈക്ക് സെറ്റൊക്കെ ഇട്ട് അങ്ങനെ പാടാം അല്ലെങ്കിൽ ഒറ്റക്കു തന്നെ പാടും അങ്ങനെ മൂളിപ്പാട്ട് പാടാം ഞാൻ അല്ലാതെ സ്ഥിരമായിട്ട് പ്രൊഫഷണലായിട്ട് മ്യൂസിക്ക് വെച്ചിട്ട് എന്നും ഇങ്ങനെ വെച്ചിട്ട് പ്രോഗ്രാം പോകുന്ന ആൾക്കാരൊന്നുമല്ല അപ്പം പാട്ടിങ്ങനെയൊക്കെ ആണ് പഠിക്കാനൊക്കെ എളുപ്പം തന്നെയാണ് ഈ കേട്ട് കേട്ടാണ് അല്ലാതെ പണ്ടീ ഈ പാട്ടിൻ്റെയൊക്കെ ഒരു വാരികയൊക്കെ ഇറങ്ങിയിരുന്നു വാരിക വെച്ചിട്ട് നല്ലവണ്ണം കേൾക്കും ഇപ്പം അത് വാരിക വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിട്ട് പാട്ട് കേൾക്കുന്ന സംഭവമുണ്ട് ഇപ്പം പാട്ട് പുസ്തകമുണ്ടാകും വരികൾ നമുക്കറിയില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇപ്പോഴല്ലേ വരികൾ ലിറിക്സ് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ തന്നെ അതിലെ വരികളൊക്കെ വരും പണ്ടങ്ങനെ അങ്ങനെ കേൾക്കും കേൾക്കുമ്പോഴേ റോഡിൽത്തന്നെ വായിക്കലാണ് പിന്നെ വരുന്ന പാട്ടിൻ്റെ പുസ്തകമൊക്കെ വരും ഇപ്പം അങ്ങനത്തെ പുസ്തകങ്ങൾ വരുന്നില്ല ലിറിക്സ് ലിറിക്സ് ഇറങ്ങുന്നതു കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം പാട്ടങ്ങനെ പ്രശ്നമൊന്നുമല്ല